ഹിന്ദി ഭാരതത്തിലെ രാഷ്ട്രഭാഷയാണ് ശ്രേഷ്ടഭാഷയാണ് ധാരാളം സാഹിത്യകാരന്മാര് ഹിന്ദി ഭാഷയ്ക്ക് അവരുടെതായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് രവീന്ദ്രനാഥ ടാഗോര് ഹരിവംശറായ് ബെച്ചൻ സുഭദ്രകുമാരി ചൗഹാൻ തുടങ്ങിയവര് അവരുടെ കൃതികൾ കൊണ്ട് ഹിന്ദി ഭാഷയെ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില് ഹിന്ദി അവരുടെ പഠനഭാഷയുംകൂടിയാണ് ദഷിണേന്ത്യയിലോട്ട് വരുമ്പോള് നമുക്ക് നമ്മുടെ മാതൃഭാഷയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം അങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തില് നമ്മള് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മലയാള ഭാഷയ്ക്കാണ് കേരളീയരുടെ മാതൃഭാഷയാണ് മലയാളം നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളെല്ലാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കില് നമുക്ക് നമ്മളെ സ്വന്തം ഭാഷയിലേ സംസാരിക്കാൻ പറ്റുകയുള്ളു അമ്മയോട് സംസാരിക്കുന്ന അതേ സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് നമ്മുടെ ഉത്തമമായ വികാരങ്ങള് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് മാതൃഭാഷയില്ക്കൂടി സാധിക്കും അങ്ങനെ മലയാളത്തില് ധാരാളം സാഹിത്യകാരന്മാരുണ്ട് ഗ്രന്ഥങ്ങളാൽ സമ്പുഷ്ടമാണ് മലയാളഭാഷ എന്ന് വേണമെങ്കില് പറയാം ഋഗ്വേദം പരിഭാഷപ്പെടുത്തിയ ഋഗ്വേദം കാളിദാസന്റ അഭിജ്ഞാന ശാകുന്തളമൊക്കെ പരിഭാഷപ്പെടുത്തിയ വള്ളത്തോള് ആധുനിക കവിത്രയത്തില് പ്രധാനിയായ കവിയാണ് കുമാരനാശാൻ ഉള്ളൂര് ഇവരൊക്കെ മലയാളഭാഷയ്ക്ക് മലയാളഭാഷയെ സമ്പന്നമാക്കി എന്നുതന്നെ പറയാം പുരാതന കവിത്രയങ്ങളില് വരുമ്പോള് ശ്രേഷ്ഠരായിട്ടുള്ള കവികളെക്കുറിച്ച് പറയാണെങ്കിൽ ആദ്യം പറയേണ്ടത് എഴുത്തച്ഛനാണ് ആധുനിക മലയാളഭാഷയുടെ പിതാവെന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ കിളിപ്പാട്ടുകള് അദ്ധ്യാത്മരാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമകീർത്തനമൊക്കെ ഹിന്ദൂ ഗൃഹങ്ങളില് പുണ്യഗ്രന്ഥമായിട്ട് കരുതി സൂക്ഷിക്കുന്നു അടുത്ത ജെനറേഷനു കൂടി അത് ഉപകാരപ്പെടത്തക്ക രീതിയില് മുതിർന്നവര് കൊച്ചുകുട്ടികളെ അത് പഠിപ്പിച്ചെടുക്കാനായിട്ട് മുൻകൈയെടുത്ത് വരാറുണ്ട് അത് നമ്മുട സാംസ്കാരിക പാരമ്പര്യം കൂടിയാണ് കേരളീയരുടെ മാതൃഭാഷ സ്നേഹമാണ് അതിൽനിന്നെല്ലാം വ്യക്തമാക്കുന്നത് പിന്നെ കഥാകാരന്മാരെക്കുറിച്ച് പറയുകയാണെങ്കില് നമ്മടെ വൈക്കം മുഹമ്മദ് ബഷീര് എസ് കെ പൊറ്റക്കാട് പിന്നേ മുട്ടത്ത് വർക്കി ഇവരൊക്കെ മലയാളഭാഷയ്ക്ക് എം റ്റി വാസുദേവൻ നായര് എടുത്ത് പറയേണ്ട പേര് അദ്ദേഹത്തിന്റെതാണ് ഇവരൊക്കെ മലയാളഭാഷയ്ക്ക് ശ്രേഷ്ഠങ്ങളായിട്ടുള്ള സംഭാവനകള് പറഞ്ഞാൽ തീരൂല്ല അങ്ങനെ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട് ജ്ഞാനപീഠ അവാർഡ് ആദ്യമായിട്ട് ഭാരതത്തില് ഭാഷകളിലുള്ള കൃതികളില് ഏർപ്പെടുത്തിയപ്പോള് ആദ്യത്തെ സമ്മാനം തന്നെ ലഭിച്ചത് മലയാളിയായ ജി ശങ്കര കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അങ്ങനേ ബേപ്പൂരിന്റെ സുൽത്താനെന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാലസഖി എന്നു പറയുന്നൊരു കുഞ്ഞു നോവല് അത് ലോകത്തിലെ പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റേയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതിവരെ കിട്ടിയിട്ടുണ്ട് സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുണ്ട് എം ടി വാസുദേവൻ നായർക്ക് സുഗതകുമാരി ടീച്ചറിന് പ്രകൃതിസ്നേഹിയായ സുഗതകുമാരി ടീച്ചര് എൻ വി സാര് ഇവരുടെയൊക്കെ നാമങ്ങള് നമുക്ക് മലയാളികൾക്ക് ജീവനുള്ളിടത്തോളം കാലം മറക്കാൻ പറ്റൂല്ല ഇങ്ങനെ അവരുടെ ഗ്രന്ഥങ്ങള് പഠിക്കാനായിട്ടും പഠിപ്പിക്കാനായിട്ടുമൊക്കെ ഉള്ള ഭാഗ്യം സിദ്ധിച്ചവരാണ് മലയാളികള് പിന്നെ മലയാളഭാഷ ഒരു സമ്പന്ന മായ ഭാഷയായിട്ട് വളർന്നുകൊണ്ടേ ഇരിക്കയാണ് അതിലോരോ മലയാളിക്കും അഭിമാനിക്കാം